ഹലോ ആ നമ്മുടെ ഈ ഫോട്ടോ എന്തായി

നമുക്കത് അത്യാവശ്യം കേസായിരുന്നു നമുക്ക് എത്രയും പെട്ടന്നത് കിട്ടണമായിരുന്നു ഇപ്പോൾ എൻ്റെ എൻ്റെ ഫോണിൽ അല്ല ഫോണിൽ എൻ്റെ പേരൊന്നുമില്ലിപ്പോൾ എൻ്റെ പോ പേരൊക്കെ കട്ട് ചെയ്തു കളഞ്ഞോ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് പരിചയമുള്ള സൗണ്ട് തന്നെയാണ്

ആ അതെ അതെ അതേ ഞാൻ അറിഞ്ഞത് ഫോട്ടോ എടുത്തത് ക്ലിയറായിട്ട് കിട്ടീലാന്നാണല്ലോ അപ്പം അ നിങ്ങളെ നിങ്ങൾക്ക് വേറെ വർക്കൂടി ഞാൻ ത തരാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു പക്ഷേ ഇതെങ്ങനെ ഡിലെ ആവാണെങ്കിൽ പിന്നെ നമുക്കിതെങ്ങനെ തരാൻ പറ്റും നമുക്ക് പാർട്ടിയോടൊരു അല്ല നിങ്ങളുടെ കൂടെ വന്ന ആ പയ്യൻ അത്ര ശരിയല്ലാന്ന് പറയണു വർക്കിനോട് ഒരല്പം സഹകരിച്ചു പോണില്ല അപ്പതൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ പ അല്ല പലരും അത് പല രീതീലാണ് അഭിപ്രായങ്ങളാണ് എനിക്ക് വരണത് നിങ്ങളോടുള്ള ബന്ധത്തിലാണ് ഞാൻ നിങ്ങക്കീ വർക്ക് തന്നത് നിങ്ങളത് അതുപോലെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു സമയത്തിന് സാധനം കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പത് കിട്ടിയില്ല ഇങ്ങനെ